പ്രാദേശിക സംസ്കാരവും പാരമ്പര്യവും ഉയർത്തി കാട്ടുന്ന വിനോദപരിപാടികളിലൂടെ ഭാഗമാകാൻ എനിക്കും താൽപ്പര്യമാണ് കാരണം എന്തെന്നാൽ അത്തരത്തിലുള്ള വിനോദ പരിപാടികളിലൂടെ ഭാഗമാകുന്നതോടെ അത് മാറ്റൾക്കാരിലേക്ക് ദേശത്തിൻ്റെ സംസ്കാരവും പാരമ്പര്യവും എത്തിക്കുന്നതിൽ കൂടി ഒരു കാരണമാകുന്നു ഒരു പ്രദേശത്തിൻ്റെ സംസ്കാരവും പാരമ്പര്യവും ഒക്കെ എന്നും വരും തലമുറക്ക് അറിഞ്ഞിരിക്കേണ്ടതാണ് അത്യാവശ്യം തന്നെയാണത് അങ്ങനെ അതിൻ്റെ പ്രാധാന്യം അറിയാണമെങ്കിൽ യുവ തലമുറ ഇത്തരത്തിലുള്ള വിനോദ പരിപാടികളുടെ ഭാഗമാകുക തന്നെ വേണം അങ്ങനെ വരുമ്പോൾ അവ തലമുറ തലമുറ കൈമാറി ഒരു ദേശത്തിൻ്റെ സംസ്കാരം അതേപടി നിലനിർത്തുകയും എന്താണ് ഞാൻ കരുതുന്നത് അങ്ങനെ നിലനിൽക്കണമെങ്കിൽ ഞാൻ അടക്കമുള്ള യുവ തലമുറ പ്രാദേശിക സംസ്കാരവും പാരമ്പര്യവും ഉയർത്തി കാട്ടുന്ന വിനോദ പരിപാടികളുടെ ഭാഗമാവുക തന്നെ വേണം